ഹലോ സാർ റമീസ് ഹോട്ടലല്ലേ ഞങ്ങൾക്ക് കുറച്ച് പിന്നെ ആഹാര സാധനങ്ങൾ ഓഡർ ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് ഡിസ്പോസ് പിന്നെ പ്ലേറ്റുകളും ഗ്ലാസുകളും കൂടെ ഞങ്ങള്ക്ക് സഹാ അതിൻ്റെ കൂടെ തരണം എന്തെല്ലാം ആഹാരമെന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരി ചിക്കൻ ബിരിയാണി ബോറോട്ട ചില്ലി ചിക്കൻ സാ സാലഡ് പിന്നെ ഫ്രൈ റൈസ്റ്റ് ചിക്കൻ ഫ്രൈ ഫ്രൂട്ട് സാലഡ് സാ പിന്നെ കുറച്ചപ്പം ദോശ

മട്ടൻ കറി ഇങ്ങനെ പ ഇത്രയും സാധനങ്ങളും ഭക്ഷണപദാർ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഞങ്ങൾക്ക് നൽകണം ഇന്ന സ്ഥലത്തിൽ കൊണ്ടുവരണം ഞങ്ങളുടെ വീട് വലിയവിള ഫ്ലാറ്റിൽ ഫ്ലാറ്റ് പത്താം ബ്ലോക്കിലാണ് അവിടെ എത്തിക്കണം